ഹലോ ടീച്ചറല്ലേ

ഇവിടെ ഇപ്പം വരുന്നേനൊട്ടും പഠിക്കുന്നില്ല തീരെ പഠിക്കുന്നില്ല ടീച്ചറ് പേടിപ്പിക്കുന്നൊന്നും ഇല്ലേ ഇപ്പാ എപ്പോഴും ഫോൺ നോക്കി ഉച്ചയാവോളം കിടന്നുറങ്ങുന്നു

അദ്വൈത് ആ പ്ലസ്ടുവിൽ പഠിക്കുന്നത് ഒട്ടും പഠിക്കുന്നത് ഇല്ല രാവിലെ അച്ഛൻ വിളിച്ചാൽ എണീക്കുന്നു ഇല്ല വായിക്കുന്നു ഇല്ല തീരെ പഠിക്കുന്നു ഇല്ല പണിയും എടുക്കുന്നില്ല എപ്പോഴും ഫോൺ നോക്കിക്കോണ്ടും ഏഹ് ആ കുറേയുണ്ട് ഉണ്ടെന്ന് തോന്നുക

ആ ആ ആ ആ ആ ആ അതെയോ ഈട ഒട്ടും പറഞ്ഞാൽ ഈട വീട്ടിൽ നിന്ന് ആ ആ ഓൻ ഒട്ടും വീട്ടിൽ നിന്ന് ഒട്ടും പഠിക്കുന്നില്ല ഇനി സ്കൂൾളിൽ നിന്ന് പഠിക്കുന്നോ എഴുതുന്നോ എന്നൊന്നും അറിയുന്നില്ലല്ലോ ഈട വിളിച്ചാൽ എണീക്കുന്നും ഇല്ല രാവിലെ ഒന്നും പഠിക്കുന്നും ഇല്ല ഇല്ല രാവിലെ എണീക്കുന്നു കുറച്ചു വായിക്കുന്നു അത് കഴിച്ചു പൂട്ടി കിടക്കുന്നു പിന്നെ എട്ട് മണിയാവുമ്പോൾ എണീക്കുന്നു ചേർക്കുന്നു ആ പിന്നെ കുറച്ച് നല്ലോണം പേടിപ്പിച്ചിക്കുന്ന് പേടിപ്പിക്കണം അത് വീട്ടിൽ നിന്ന് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല ടീച്ചറിനെ കുറച്ച് പേടിപ്പിക്കണം അല്ല ഒരു മോളും ഉണ്ട് മോൾ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ ആ ഓളും വലിയ പഠിത്തമൊന്നുമില്ല കുറഞ്ഞു കൊണ്ട് പോകുന്നുണ്ട് നേരത്തെല്ലം ആ പഠിച്ചിന് ഇപ്പോൾ പഠിക്കുന്നില്ല ക്ലാസ് കൂടുന്നായിറ്റ് പഠിക്കുന്നേ ഇല്ല പത്താം ക്ലാസ്സിലെല്ലം എ പ്ലസ്സ് എല്ലാം ഉണ്ടായിന് ഇപ്പോൾ കുറച്ച് കയ്യുമ്പം പോൺ വച്ചു കയ്യുമ്പം മറ്റേ കണ്ണ് ടീവീ ഫോണ് ഇങ്ങനെ ഡിഗ്രി പോവാൻ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നു മോൻ അങ്ങനെ മോളും അങ്ങനെ ആ അദ്വൈത് നല്ലതാണ് പഠിച്ചിന് ആദ്യമെല്ലാം ഇപ്പോൾ ഓൻ അങ്ങന്നെ കളിയും ചെരീമ്മ കളിക്കാൻ പായും ഓ അപ്പള് ഫോണും ആ ആ കുറച്ചു പറഞ്ഞു നിങ്ങ പേടിപ്പിക്കണം ആ എന്നാൽ ആയി ആയി